കൃഷി ചെയ്യുമ്പോൾ സാങ്കേതിക വളർച്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും യന്ത്ര സാമഗ്രികളുടെ ഉപയോഗം കൃഷിയെ വളരെ വളരെയധികം രീതിയിൽ സഹായിക്കുന്നു യന്ത്രങ്ങളുടെ ഉപയോഗം മെച്ചപ്പെട്ട കൃഷി ചെയ്യാനും വളരെ എളുപ്പത്തിൽ കൃഷി ജോലികൾ പൂർത്തിയാക്കാനും സഹായിക്കുന്ന ഒന്നാണ് യന്ത്രങ്ങൾ കള പറിക്കാൻ മുതൽ കൃഷിയെ നടാനും കൊയ്യാനും ഉഴുതു മറിക്കാനും എല്ലാത്തിനും യന്ത്രങ്ങളാണ് ഇപ്പോൾ ഉപ ഉപയോഗിക്കുന്നത് സാങ്കേതികവിദ്യകൾ യന്ത്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല മണ്ണ് പരിശോധന ഏതൊക്കെ വളങ്ങളുടെ ഏതൊക്കെ വളങ്ങൾ ഇനി ഉപയോഗിക്കണം മണ്ണിലെ ഈർപ്പം മുതലായ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സാങ്കേതികമായും വിദഗ്ധമായും പരിശോധിച്ച് അതിനനുസരിച്ച് കൃഷി ഉപയോഗിക്കാവുന്നതാണ് മണ്ണിൽ ഏതാണോ കുറവ് അത് ആവശ്യത്തിലധികം മണ്ണിൽ ഉപയോ പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ മെച്ചപ്പെട്ട രീതിക്ക് വിളകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്